ആ ഓക്കേ പറഞ്ഞോളൂ സാർ ആ ഓക്കേ ആ ഓക്കേ സാർ എത്രാം സ്റ്റാൻഡേർഡിലേക്ക് ആണ് കുട്ടി ആ എയിറ്റ്ത്തിലേക്ക് ആണല്ലേ ആ ഓക്കേ സാർ നമ്മളിപ്പോ ആ ഒരു കുട്ടിക്ക് നമ്മളിപ്പോ അഡ്മിഷൻ ഫീസും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഫസ്റ്റ് നമ്മള് ഇപ്പോ മേടിക്കിന്നത് എൺപതിനായിരം രൂപയാണ് ആ നമുക്ക് അതായത് സ്കൂളിൽ അതായത് ഇവിടിത്തേ ഫീസ് മാത്രം ആണ് എൺപതിനായിരം രൂപ വരുന്നത് ആ പിന്നേ നമുക്ക് എങ്ങനെയാ ആ യൂണിഫോമ് നമ്മള് തുണി ഇവിടെന്ന് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ പൊറത്തുന്ന് എവിടെന്നെങ്കിലും തയ്പ്പിക്കണം അയിൻ്റ രീതീം കാര്യങ്ങളൊക്കേ നമ്മള് ഇവിടെ വരുമ്പം പറഞ്ഞു തരാം പിന്നേ പിടിഎ ഫണ്ട് അങ്ങനെ ഉള്ള ഫീസ് എല്ലം ഇതിനകത്ത് പെടും പിന്നേ സ്കൂൾ ബസ്സ് ഒക്കേ ഇണ്ടെങ്കീ അയിനൊക്കേ നമ്മള് അഡീഷണൽ പേയ്മെൻറ്റ് ആണ് കേട്ടോ സാർ മസ്റ്റ് ആണല്ലേ ഓക്കേ നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കേ ഈ ഫീസിൽ പെടുന്നതാണ് ആ പിന്നേ നോട്ട് ബുക്കുകള് കാര്യങ്ങൾ ഒന്നും വരുന്നുണ്ടാവില്ലാ ടെക്സ്റ്റ് മാത്രാണ് വരാ ആ ഓക്കേ പിന്നേ വേറെന്തെങ്കിലും അറിയാൻ എന്തേലും ഉണ്ടോ ആ മാസാ മാസാണ് വരുവാ ഇല്ലാ സാറത് ഇപ്പം മന്ത്ലി പേ ചെയ്താമതി ഇപ്പാ സാറ് എവിടെയാണ് ലൊക്കേഷൻ അയിന് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും

ആ ഈ നമ്പറില് വിളിച്ചാ മതി സാർ ആ സാറിന് പിന്നേ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കുട്ടി എട്ടാമത്തെ സ്റ്റാൻഡേർഡ്ന്നല്ലേ പറഞ്ഞേ

പിന്നേ നമുക്ക് വേറേ കാര്യങ്ങളെന്നൊക്കേ പറയാനാണെങ്കീ ഇപ്പോ ഉള്ളത് ഫീസ് ഫീസിൻ്റ കാര്യൊക്കേ പറഞ്ഞല്ലോല്ലേ പിന്നേ നമുക്ക് സ്റ്റാൻഡേർഡ് ഇപ്പോ ക്ലാസ് ഓൾമോസ്റ്റ് കൊറേ ഒക്കേ നീങ്ങീട്ടുണ്ട് അപ്പോ ഇതിന് മുമ്പ് പഠിപ്പിച്ച സ്കൂള് അവര് എത്തീട്ടില്ലെങ്കീ നമുക്ക് അയിന് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും കുട്ടീൻ്റ ക്ലാസ്സും കാര്യങ്ങളൊക്കേ നമുക്ക് പോവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും ആ ഓക്കേ കൊഴപ്പില്ലാ സാർ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പിന്നേ സാറ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കീ നമുക്ക് സ്കൂളിൽ വരുമ്പം നേരിട്ട് സംസാരിക്കാം കേട്ടോ അതെ പേഴ്സണൽ നമ്പർ ആണ് എന്തേലും ഡൗട്ട് ഉണ്ടേൽ ആ ഒക്കേ എന്നെ വിളിച്ചാ മതി എന്തേലും ഉണ്ടെങ്കീ വരുന്നേൻറ്റെ നേരം വിളിച്ചാ മതി ഞാൻ ചെലപ്പം ഇവിടെ ഉണ്ടാവില്ലാ വേണെങ്കില് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ

ഓ ഓക്കേ ഞങ്ങളത് വേണ്ട പോലെ ചെയ്ത് തരാം സാർ